ഞാൻ ശേഖരിക്കുന്ന സ്റ്റാമ്പുകൾ നാണയങ്ങൾ ഇവയുടെ പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ല പിന്നെ ഒരു ചെറിയൊരാഗ്രഹം അഥവ അഭിലാഷമുണ്ടല്ലോ നമുക്ക് ഒ ചില കാര്യങ്ങളോടുള്ള താത്പര്യം വ്യത്യസ്തമായ രാജ്യങ്ങളിലെ കോയിൻസും സ്റ്റാമ്പുകളൊക്കെ ലഭിക്കുമ്പോൾ അവ എടുത്തു വെക്കാനും നമ്മുടേത് അതായത് ഇന്ത്യയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിലെ പൈസ എൻ എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിലെ പൈസ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഒക്കെ സാധിക്കാനാണ് കളക്ഷൻ അതു നാണയങ്ങളുടെ കളക്ഷൻ കൊണ്ട് എനിക്ക് തോന്നുന്നത് അതുപോലെ സ്റ്റാമ്പുകളും വ്യത്യസ്തമായ രാജ്യങ്ങളിൽ സ്റ്റാമ്പുകൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചില കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് അതായത് ചില സ്റ്റാമ്പ് ശേഖരണത്തിനു സമ്മാനം കിട്ടിയ അവസരങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ഇപ്പോഴും സ്റ്റാമ്പ് ശേഖരിക്കുമ്പോൾ ഏതെങ്കിലും കുട്ടികൾക്കു സ്കൂൾ തലത്തിലത് ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ സാധിക്കുമല്ലോ അതുകൊണ്ട് മാത്രം